പണ്ടത്തേയും ഇപ്പോഴത്തെയും ഒരു വിനോദ വ്യവസായം വെച്ച് നോക്കുമ്പം പണ്ടത്തെതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ വിനോദ വ്യവസായം പണ്ടൊക്കെ ഫുട്ബോളിനും ക്രിക്കറ്റിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്ര ഇപ്പം ഈ കാലഘട്ടം ആയപ്പോഴത്തേക്ക് അതില് കുറച്ചു വ്യത്യാസം ഒക്കെ വന്ന് ഒരു വിധം ആളുകൾ അതിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ വേൾഡ് മാച്ചുകളും തുടങ്ങി ഒരുപാട് മത്സരൊക്കെ വന്ന് പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പം ഇന്ത്യയില് കൂടുതലായിട്ട് എല്ലാവരും കളിക്കുന്നത് ചെസ്സ് ഉണ്ട് കബഡി ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് തുടങ്ങിയ ഒരുപാട് വിനോദ മേഖലകൾ ഉണ്ട് എന്നാലും ആളുകൾക്ക് കൂടുതലിഷ്ടം ക്രിക്കറ്റും ഫുട്ബോളും ആണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി ഉള്ളതിലേക്ക് മറ്റ് ആളുകൾ നോക്കുന്നുള്ളു എന്നാൽ തന്നെ ഇപ്പോഴത്തെ തലമുറയില് പലരും ഫോണുകൾക്ക് അടിമപ്പെട്ട് ഫ്രീ ഫയറ് പബ്ജി തുടങ്ങിയ ഗെയിമിനൊക്കെ അടിമപ്പെട്ട് സ്പോർട്സിലേക്കൊന്നും അധികം തിരിയാതെ ഇങ്ങനെ നടക്കുകയും നടക്കുന്ന ഒരിതും കൂടിയാണ് അതിനും കൂടി വ്യത്യാസം വന്നാൽ ഇന്ത്യൻ വിനോദ വ്യവസായം വളരെ മികച്ചതാവും